ആ അതെ പറഞ്ഞോളൂ ആ ഓക്കേ ആ ഓക്കേ മാഡം പറഞ്ഞോളൂ എന്താണ് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കണ്ടേ ആ ഓക്കേ ഒമ്പത് പേരാണോ ആ ഓക്കേ മാഡം എന്നത്തേക്കാണ് എത്തുന്നത് എന്നൊന്നും പറഞ്ഞില്ല മൺഡേ ആണല്ലേ ആ ഒമ്പത് പേരല്ലേ ആ നമ്മൾ റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്യണോ മാഡത്തിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓക്കേ ഓക്കേ ആ ആ ഒമ്പത് പേര് അപ്പോൾ നമ്മൾ എവിടെ കോഴിക്കോട് ആണോ മാഡം എത്തുന്നത് ട്രെയിനിന് ആണോ വരുന്നത് ആ ഓക്കേ അല്ല പിക്ക് ചെയ്യാൻ വരണോയെന്ന് വണ്ടി വിടണം എന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആണ് ആ പിന്നെ മാഡം നമ്മൾ ഇപ്പോൾ എവിടേക്കൊക്കെ ആണ് മാഡത്തിന് ഇപ്പോൾ കൂടുതലും ഇവിടെ വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെ അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താ പറയുക പകുതി സ്ഥലങ്ങൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കാരണം മഴ ഒക്കെ കാരണം നമുക്ക് ഇവിടെ ആൾമോസ്റ്റ് സൊ വയനാട്ടിൽ ആൾമോസ്റ്റ് എന്താ പറയുക കൂടുതൽ സ്ഥലങ്ങളും ഇതാണല്ലോ ക്ലോസ്ഡ് ആണ് കാരണം മഴ ഒക്കെ കാരണം ബുദ്ധിമുട്ട് ആണ് ആൾക്കാർക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കൂടുതലും നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ളത് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളാണ് കുറുവ ദ്വീപ് എന്നു പറയുമ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ സ്ഥിതിയെന്ന് പറയാൻ പറ്റില്ല അവിടെ ഇപ്പോൾ ഓപ്പൺ ആണ് പിന്നെ നമ്മൾക്ക് പൂകുവാൻ പറ്റിയ സ്ഥലം എന്നു പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇവിടെ ഫോറെസ്റ്റ് വൈൽഡ് ലൈഫ് മറ്റേ മുത്തങ്ങ അവിടെ പോയിട്ട് നമ്മൾക്ക് ട്രെക്കിങ്ങിന് പോകുവാൻ പറ്റും പിന്നെ പടിഞ്ഞാറേത്തറ ഡാമിൻ്റെ ഒക്കെ ഓപ്പൺ അല്ല അവിടെ നമ്മൾക്ക് വിളിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് പോവാം പിന്നെ വാരാപ്പുഴ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഓക്കേ

നമ്മൾ ഇപ്പോൾ പരമാവധി ഡിസ്ക്കൗണ്ടിൽത്തന്നെ മാഡത്തിന് ചെയ്തു തരാം മാഡം എന്നത്തേക്കാണ് എത്തുന്നത് അപ്പോഴത്തേക്കും നമ്മളത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാഡത്തിനോട് പറയാം

ആയിക്കോട്ടെ മാഡം ശരി മാഡം എന്തായാലും വരുന്നതിൻ്റെ ഒരാഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നെ വിളിക്കണം കേട്ടോ

ഓക്കേ ശരി എന്നാൽ